പ്രാദേശത്തുള്ള കർഷകരെ വിളിച്ച് കൂട്ടിക്കൊണ്ടേ അവർക്കുവേണ്ടി നല്ലൊരവസരം കൊടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവിടെ ഒന്നര ഏക്കറുള്ള സ്ഥലത്ത് എല്ലാവിധ പച്ചക്കറികളും പച്ചക്കറികളും വിത്തുകൾ കൊടുത്തു അവർക്കു പ്രോത്സാഹനം കൊടുത്തു അവർ രണ്ടു തരങ്ങളായി തിരിഞ്ഞുകൊണ്ട് ഓരോരുത്തർ ഓരോ തരം കൃഷി നയങ്ങൾ ചെയ്തു ഒരു കൂട്ടർ വെണ്ട കൃഷിയും മറ്റൊരു കൂട്ടർ തക്കാളി കൃഷിയും മറ്റൊരു കൂട്ടര് കേബേജ് കൃഷിയും അങ്ങനെ എല്ലാവിധ കൃഷികളുംകൊണ്ട് അവർ നല്ലൊരു വരുമാനം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു അവർക്ക് ഞാൻ കൊടുത്ത ഈ അവസരം നല്ല രീതിയില് വിനിയോഗിക്കുകയും അവർ നല്ല രീതിയിൽ ബാങ്ക് അക്കൗണ്ടെടുത്ത് നല്ലൊരു പണം സമ്പാദിക്കുകയും ചെയ്തുകൊണ്ട് അവർ ഞാന് പറഞ്ഞ നയങ്ങളിലൂടെ ഇന്നും അവരെല്ലാം നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണ് അതുകൊണ്ട് അവരുടെ കുടുംബത്തിനും പ്രദേശത്തും മറ്റു സ്ഥലങ്ങള് എല്ലായിടത്തും അവരുടെ വിശദാംശങ്ങളില്ലാത്ത എല്ലാവിധ കായ്ഫലങ്ങളും അവരെത്തിച്ചുകൊടുക്കുന്നു അതോടുകൂടി അവർ നല്ലൊരു വരുമാനം കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു ഞാൻ പറഞ്ഞുകൊടുത്ത ആ പ്രോത്സാഹനത്തോടുകൂടി അവർ എല്ലാം നല്ല രീതിയിൽ എല്ലാ കർഷകർക്കും അതൊരു ജോലി ക്കാരുമായി സഹകരിച്ചുകൊണ്ട് അവർ നല്ല രീതിയിൽ അത് ഉപയോഗിക്കുകയും അവരുടെ കടബാധ്യകളൊക്കെ തീർത്തുകൊണ്ട് അവർ മുന്നോട്ടുവരികയും ചെയ്തിരിക്കുന്നു